രാജ്യത്ത് ലഭ്യമായ ആശുപത്രികളും അത്യാവശ്യം മെഡിക്കൽ സേവനങ്ങളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നോക്കുകയാണെന്നു വച്ചാൽ നമ്മുടെ ഒരുപാട് മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും മറ്റു ആരോഗ്യ സംരക്ഷിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചിലവ് താങ്ങാവുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൈവറ്റ് ആശുപത്രികൾ നമുക്ക് നല്ല പൈസയുടെ ആവശ്യമുണ്ട് സർക്കാർ ആശുപത്രികളിൽ കുഴപ്പമില്ല സൗജന്യമാണ് എല്ലാം പക്ഷെ മതിയായ ജീവനക്കാരും മറ്റൊന്നുമില്ലാത്തതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളെല്ലാം നേരിടുന്നുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഓരോ കാലഘട്ടം മാറുംതോറും ഓരോത്തിനും ഉള്ള ചിലവ് കൂടിക്കൂടി വരികയാണ് തീർച്ചയായും നമുക്കറിയാം മരുന്നിനായിക്കോട്ടെ അതുപോലെത്തന്നെ വസ്ത്രങ്ങളിൽ ആയിക്കോട്ടെ എല്ലാത്തിനും യാത്ര ചെയ്യാൻ ആയിക്കോട്ടെ എല്ലാത്തിനും ചിലവ് താങ്ങാവുന്നതിനേക്കാൾ അപ്പുറമാണ് അപ്പോൾ അങ്ങനെ ഉള്ള ചിലവ് ഒരുപാട് കൂടിക്കൂടി വരികയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ ഒരുപാട് ചിലവാണ് ചികിത്സിക്കാൻ ഒരുപാട് ചിലവാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുളിൽ സൗകര്യവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ചിലവ് കൂടിക്കൂടിയാണ് വരുന്നത് കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് പേർ കോവിഡിന് കീഴിൽ മരണപ്പെട്ടവർ ഉണ്ട് അല്ലെങ്കിൽ അതിനെ മരണപ്പെട്ടവരും ഉണ്ട് അതിനെ അതിജീവിച്ച് പോരാടിയവരും ഉണ്ട് അപ്പോൾ ഒരുപാടു പേര് വീട്ടിൽ തന്നെ സ്വയം ഇരുന്നു കോവിഡിനെ അകറ്റുകയും കുറച്ചുപേർ കുറച്ചു പേരൊക്കെ മാറി നിന്ന് അല്ലെങ്കിൽ മാറി മറ്റു സ്ഥലങ്ങളിലോട്ടൊക്കെ മാറി അങ്ങനെ നിന്നവരും അതിജീവിച്ചവരും ഉണ്ട് കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ എൻ്റെ ഒരു അനുഭവമെന്നു പറയുമ്പോൾ ഞാനും ഞങ്ങളൊരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് വീടുകളിൽ തന്നെയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത് ഇവിടെ വലിയ വിലക്കും മറ്റു കാര്യങ്ങളും ഒന്നും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം ഉൾപ്രദേശമാണ് പിന്നെ അധികം ഇവിടെ കോവിഡ് പടർന്നു പിടിച്ച ആൾക്കാരുടെ എണ്ണവും അങ്ങനെ ഇവിടെ കുറവായിരുന്നു പിന്നെ അതുപോലെത്തന്നെ മെച്ചപ്പെട്ട ആരോഗ്യം നമുക്ക് ലഭിക്കുന്നതിനായിട്ട് കൂടുതലും നോക്കുകയാണെന്നു വച്ചാൽ ചിലവ് മറ്റും കാര്യങ്ങളൊക്കെ കുറയ്ക്കുക അതുപോലെത്തന്നെ എല്ലാവരും സർക്കാർ ആശുപത്രി ഉപയോഗിക്കാൻ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായും സർക്കാർ ആശുപത്രികൾ കുറിച്ച് പുരോഗമനം ഉണ്ടാകും അതു പറഞ്ഞാൽ പൈസ ഇല്ലാത്തവർ മാത്രമാണ് സർക്കാർ ആശുപത്രിയിൽ ആശ്രയിക്കാറുള്ളത് എന്നാൽ ആ ഒരു അവസ്ഥ മാറ്റി എല്ലാവരും നിർബന്ധമായും സർക്കാർ ആശുപത്രിയിൽ തന്നെ ചികിത്സ തേടണം എന്നുള്ള ഒരു ഉത്തരവ് ഇറക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ സർക്കാർ ആശുപത്രികളും മെച്ചപ്പെടുന്നതാണ്